ഹായ് എന്നോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴെങ്കിലും ഡ്രോയിങ് ക്ലാസ്സോ ശില്പ ശാലയോ എടുത്തിട്ടുണ്ടോ എന്നാണ് ഡ്രോയിങ് ക്ലാസ്സ് ഞാൻ കുഞ്ഞിലെ എടുത്തിട്ടുള്ള ഒരാളാണ് ശനിയാഴ്ച്ച തോറും ആർട്ട് ക്ലാസ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറ് ഉണ്ടായിരുന്നു സ്കൂൾ സ്കൂളിലും ഡ്രോയിങ് ക്ലാസ്സ് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം ഓരോ പീരിയഡ് ഡ്രോയിങ് ക്ലാസ്സ് ഉണ്ടായിരുന്നു അത് പോലെ തന്നെ ശനിയാഴ്ച്ചകളിൽ രണ്ട് മണിക്കൂർ ആർട്ട് ക്ലാസും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ട് ശില്പശാലയ്ക്കായി ഞാൻ പോയിട്ടില്ല ഡ്രോയിങ് ക്ലാസ്സിൽ തന്നെ അതിനെ കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളുമൊക്കെ ലഭിക്കുവാണ് ചെയ്തത് എനിക്ക് ഡ്രോയിങ് ക്ലാസ്സ് അധികം നാളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും പോയ അത്രയും നാൾ ഞാൻ വളരെ അധികം എൻജോയ് ചെയ്ത ഒരു കാര്യമാണ് ഡ്രോയിങ് ക്ലാസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ള കഴിവുകൾ ഏറ്റവും മികച്ച രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഡ്രോയിങ് ക്ലാസ്സ് ഒന്ന് പറയുന്നത് നമ്മൾ വളരെ ചുരുങ്ങിയ രീതിക്ക് അല്ലെങ്കിൽ വളരെ നോർമലായി ആൾ വരയ്ക്കുന്ന പോലെയായിരിക്കും നമ്മൾ വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ വൃത്തി ഉണ്ടെന്ന് തോന്നത്ത് പോലും ഇല്ല പക്ഷെ ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ പോകുന്നതിലൂടെ നമുക്ക് അത് ആ കഴിവുകളൊക്കെ വളർത്തി എടുക്കാൻ വളരെയധികം സാധിക്കും ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ കുഞ്ഞിലേ വരച്ചുകൊണ്ട് ഇരുന്നതിൽ നിന്നും ഒത്തിരി മെച്ചപ്പെട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത് അത് ആ ക്ലാസുകൾക്ക് പോയത് കൊണ്ട് മാത്രമാണ് അത്പോലെ ഒരുപാട് കഴിവുള്ള കുട്ടികളെ അതിന് ഇടയിൽ കാണാൻ പറ്റും ഏറ്റവും മികച്ചതായി വരയ്ക്കുന്നത് തൊട്ട് ആ വരയ്ക്കാൻ അധികം കഴിവില്ല എങ്കിലും ആ ഉള്ള കഴിവിനെ വളർത്തി എടുക്കാനുള്ള ആ ജിജ്ഞാസ ഉള്ള കുട്ടികൾ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിലും മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് ഞാൻ അവിടുന്ന് പഠിച്ച ഒരു കാര്യമാണ് അത് പോലെതന്നെ അവിടുത്തെ ടീച്ചേർസ് ആണെങ്കിലും നമ്മളെ വളരെയധികം മനസിലാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് തന്ന് നമ്മുടെ കഴിവ് വളർത്തിയെടുത്ത് നമ്മളെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരുന്നു അവിടെയുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ പോയതിലൂടെ എനിക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളില് കഴിവുണ്ട് തിരിച്ചറിയാനായി എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ ഏറ്റവും വലിയൊരു നേട്ടമായി കണക്കാക്കുന്നു